പാലക്കാട് ജില്ല പ്രകൃ പ്രധാന പ്രകൃതി വിഭവം നമ്മുടെ പ്രകൃതി വിഭവം എന്ന് വെച്ചാൽ വനവും പുഴകളും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ കടന്ന് പോകുന്നത് ക ഭാരതപ്പുഴയുടെ കൈവഴികളാണ് ചുറ്റുപാടുമുള്ള ശുചിത്വത്തിൽ മാറ്റം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നാട്ടിൻ പുറങ്ങളിലാണെങ്കിൽ ഈ വൽ വലിയ കുഴപ്പമില്ലാതെ ശുചിത്വങ്ങളൊക്കെ ശുചിത്വ രീതികളൊക്കെ എല്ലാവരും പാലിച്ച് പോകുന്നു നഗരത്തിൽ ചവറ്റുകൊട്ട് ചവറ്റുകൊട്ടകൾ ചില സ്ഥലത്ത് നമ്മൾ എല്ലാ ദിവസവും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ചില സ്ഥലത്ത് വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ എടുത്തുകൊണ്ട് പോകാറില്ല ചവറ്റുകൊട്ടകൾ അതിൻ്റെ അങ്ങനെയൊക്കെയാണ് പോകുന്നത്